ആ ചെറുപ്പത്തില് ഓട്ടം ഓട്ടത്തില് ഞാൻ കൂടിയിട്ടുണ്ട് കാരണമെന്നുവെച്ചാല് ഓടാൻ നല്ല ഇഷ്ടേനും ഓടാനും പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഓട്ടമത്സരത്തില് ഞാന് സ്കൂളില് പഠിച്ച സമയത്ത് എൽ പി വിഭാഗം പഠിച്ച സമയത്ത് അവിടെയും ഞാൻ ഓട്ട മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട് നല്ല ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ യു പിയില് പഠിച്ചപ്പോഴും അവിടെയും ഞാൻ ഓട്ടമത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട് നല്ല ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് നൂറു മീറ്റർ ഓട്ടത്തിനൊക്ക നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം കൂടുതല് കൂടുതലിങ്ങനെ ക്ലാസ്സിൽ ഉയർന്നു വന്നപ്പോള് അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഓട്ടമത്സരവും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഫസ്റ്റായിരുന്നു പിന്നെ അങ്ങനെ വീട് എന്നത് കല്യാണം ആയി കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ എങ്കിൽ പോലും ഞാൻ ആ ഓട്ടത്തിൻ്റെ ആ ഒരു കാര്യം പിന്നെ ഇപ്പോഴും എൻ്റെ മനസ്സില്നിന്ന് വിട്ടത്തൊന്നൂല്ല ഓടാൻ ഒരു ചാൻസ് കിട്ടാണ് അല്ലെങ്കില് ഞമ്മളെ തൊട്ടടുത്തു വല്ല ഓണപ്പരിപാടിയൊക്കെ വരുമ്പോഴും ഓടാനും അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലൊരു ഒരു മത്സര ഓട്ടമോ കാര്യങ്ങളൊക്കെ വരുകയാണെങ്കില് ഞാൻ അപ്പോഴും അവിടെ കറിയങ്ങാണ്ട് ഞാനാ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കും കയറിയ സമയത്തൊക്കെ എനിക്ക് നല്ലവണ്ണം അതിനുള്ള മുൻപന്തിയില് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത് നല്ല ഓടാനും കഴിയും ഇനിയിപ്പോ ഇതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാല് ഞാന് ഒരു അത് ഏതെങ്കിലും ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ടാലൻറ്റായിട്ടുള്ള മത്സരത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഞാന് ഓടാനും മുന്നില് തന്നെ പേരു കൊടുക്കുമെന്നുള്ളത് ഞാന് തീരുമാനിച്ചുവച്ചിട്ടുണ്ട്